തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ എനിക്കു കൂടുതലുമായി പറയാനുള്ളത് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഓണേഴ്സിനെയാണ് ഒരുപാട് ബ്രാഞ്ചസ് അവര് സ്റ്റാർട്ടെയ്തതു കാരണം അതിലേക്ക് ഒരുപാട് സ്റ്റാഫുകൾക്കും സ്റ്റാഫുകളെ നിയമിച്ചതുകൊണ്ടു ധാരാളം ആളുകൾക്ക് ഇതിൻ്റെ കെയറോഓഫില് ജോലി നിയമനങ്ങളും കിട്ടിയതു കാരണം ഒരുപാടു പേർക്ക് വരുമാന മാർഗമുണ്ടാക്കിക്കൊടുത്തു അവര് തൃശ്ശൂർ ജില്ലയിൽ തന്നെ അധികവും വനിതകൾക്കണതു സാധിപ്പിച്ചുകൊടുത്തത് അപ്പോള് അതിനെ ഞാൻ അവരെ കൂടുതലധികം ബഹുമാനിക്കുന്നു കല്യാണ് കല്യാണിൻ്റെ ടീമിനെ ഞാൻ കൂടുതൽ ബഹുമാനിക്കുന്നു പിന്നെ എൻ്റെ ജീവിതത്തിലും ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഞാനിപ്പോള് ആദ്യം ഞാന് ഒരു ഫേമില് മാത്രമായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളായിരുന്നു ഇപ്പോള് ഇതുപോലെ എനിക്ക് ഒരുപാട് വർക്കുകള് മൾട്ടിപ്പർപ്പസ് പോലെ ഒരുപാട് നമ്മള് മൊബൈലില്ക്കൂടി ആയാലും ചെയ്യാൻ പറ്റുന്ന വർക്കുകള് ചെയ്തിട്ടും മാർക്കറ്റിങ്ങ് ചെയ്തിട്ടും വരുമാനം ഉണ്ടാക്കാമെന്നുള്ള ഒരു മനസ്സും ധൈര്യവും ആ ഒരു ഹാർഡ് വർക്കും നമുക്കു വന്നുചേർന്നതു കാരണം നമുക്കു കുറേ കാര്യങ്ങള് ചെയ്യാനും നമുക്കൊരു ഇൻകം ഉണ്ടാക്കാനും ഫാമിലിയെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമ്മുടെ ഫാമിലിയെ ഭംഗിയായി കൊണ്ടുപോവാനും നമുക്കു സാധിക്കുന്നുണ്ട്